തൃശ്ശൂർ ജില്ല മാത്രമല്ല എല്ലാ സമിതി എല്ലാ സ്ഥലങ്ങളിലെയും യുവാക്കൾ നേരിട്ടു വരുന്ന യുവാക്കളാണെങ്കിലും യുവതികളാണെങ്കിലും യുവ തലമുറകൾ നേരിട്ട് വരുന്ന നേരിട്ട് വരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ തൊഴിലില്ലായ്മയും പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ വരുന്ന അവസരം ലഭിക്കാത്തതുമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിന്റെ പ്രധാനമായിട്ടുള്ളൊരു അവസ്ഥ അല്ലെങ്കിൽ അതിന്റെ പ്രധാനമായിട്ടുള്ളൊരു ഒരു പ്രശ്നം എന്നു പറയണത് അതിന്റെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും പഠിക്കുന്നവരാണ് എല്ലാവരും പഠിക്കും എന്താണ് പറയുക ഇപ്പോൾ ഒരു കോളേജിൽ ചെന്നിട്ട് അഡ്മിഷൻ എടുക്കാനാണെന്ന് വിചാരിക്കുക എല്ലാവർക്കും മാർക്ക് ഉണ്ട് ഇപ്പോൾ പഴയത് പോലത്തെ ഒരു അവസ്ഥ അല്ലല്ലോ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ് അപ്പം അതുപോലെ തന്നെ അവർക്ക് എല്ലാവർക്കും മാർക്കും ഉണ്ടാവും അപ്പം പിന്നെ എത്ര പഠിച്ചാലും പഠിച്ചതിന്റെ മേലെ നമ്മൾ നമുക്ക് പഠിക്കാൻ പറ്റുന്നതിനേക്കാളും ഇരട്ടി പഠിച്ചാലേ നമുക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു കോളേജിൽ ചെന്നിട്ടായാലും സീറ്റ് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെയുള്ളൊരു ഇപ്പോൾ ഇപ്പോൾ സ്കൂളുകളിൽ അതെ ഇപ്പോൾ ഒരു എൽ കെ ജി കുട്ടിക്കുപോലും പ്രഷർ കൊടുക്കുന്നൊരു കാലഘട്ടം ആണ് കാരണം ഇപ്പം ഒരു സ്കൂൾ ഒരു പ്രിലിമിനറി സ്കൂളിലടക്കം ഒരു അങ്കണവാടി പോലുള്ള സ്ഥലത്തിലടക്കം കയറണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവും ആ കുട്ടിക്ക് എ ബി സി ഡി അറിയുമോ എന്നാണ് അവർ ആദ്യം ചോദിക്കുക അതൊക്കെ അവർ അതാണ് അങ്ങനെ ആ ടൈം മുതലേ അപ്പം അവർ പേരന്റ്സ് എന്ത് ചെയ്യും രാ രക്ഷാകർത്താക്കൾ അതായത് അച്ഛനും അമ്മയൊക്കെ വീട്ടിലിരുന്നിട്ട് കുട്ടികളെ പ്രഷർ ചെയ്തിട്ട് അവർക്ക് കൂടുതൽ സമ്മർദ്ദം കൊടുത്തിട്ട് ചെറുപ്പം മുതലേ അവരെ പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കും എന്നിട്ട് എന്താണ് പറയുക ഇതുപോലെയുള്ള കോളേജ് സ്കൂൾ എൻട്രൻസ് എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപെയർ ചെയ്യിപ്പിക്കുക അഥവാ അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അവരുടെ ഹാർഡ് വർക്കിനത് അവർ ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവർക്ക് അത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് അത് കൂടു അത് കാരണം കൂടുതൽ പ്രശ്നമായി അത് മാന മാനസിക സമ്മർദ്ദം കൂട്ടുവേ ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ എത്ര പഠിച്ച് പഠിച്ച് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തൊഴിൽ മേഖലകളിലേക്ക് കയറി എത്തിപ്പെടണമല്ലോ തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് വീണ്ടും കുറേ സമ്മർദ്ദത്തിലാണ് നമ്മുടെ പുതിയ തലമുറ കാരണം എന്ന് പറയണത് അത് തന്നെ എല്ലാവർക്കും അവസരം അവസരങ്ങൾ കുറവാണ് ഇപ്പം കാരണം അതുമാത്രമല്ല പല തരത്തിലുള്ള ജോലികളും നമ്മുടെ എന്താണ് പറയുക തൊഴിൽ മേഖലകളിൽ ഇപ്പോൾ ഇപ്പോഴിങ്ങനെ കൂടിക്കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവസരങ്ങൾ കുറവാണ് കാരണം എൻ പറയണത് എല്ലാവരും ഇപ്പോൾ വളരെ മത്സരബുദ്ധിയിലും വളരെ കോംപറ്റിറ്റീവ് ആണ് എല്ലാവരും കാരണം പഠിത്തത്തിന്റെ കാര്യമാണെങ്കിലും അതെ എല്ലാ കാര്യത്തിലാണെങ്കിലും അതെ അവർ ഭയങ്കര കോംപറ്റിറ്റീവ് ആയതുകൊണ്ട് തൊഴിൽ മേഖലകളിൽ മേഖലകളിലും തൊഴിൽ രഹിതരായ ആൾക്കാർക്കും അവർ പഠിച്ചിട്ട് അവർക്ക് മാർക്ക് ഉണ്ടെങ്കിലും അവർക്ക് തൊഴിൽ കിട്ടാതെ പോകുകയാണെങ്കിൽ അത് കൂടുതൽ അവർക്ക് സമ്മർദ്ദത്തിൽ എത്തിക്കുകയും അവർ ഒന്നിനും പറ്റാത്തവരാണ് എന്നുള്ള അങ്ങനെയുള്ള മാനസികമായിട്ടും ഡിപ്രഷൻ അടക്കം വരാനുള്ള ചാൻസസ് കൂടുതലാണ്